ഹലോ ആ ആ അതെ പറയൂ ആ ഓക്കെ

ആ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എത്ര വേണ്ടിവരും ആ ഓക്കെ ആ ഓക്കെ അപ്പം ഗേൾസിൻ്റെ ലാച്ച എങ്ങനെയാണ് ഭയങ്കര നല്ല വർക്കുള്ളതാണോ അതോ സിംപിൾ ആണോ ആ ആ ഓക്കെ റേയ്റ്റ് നമ്മൾ എന്താ ഒരു കുട്ടിക്ക് നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേയ്റ്റ് അത് വർക്കിനനുസരിച്ച് മാറിവരും വർക്ക് നമ്മൾ എടുക്കുന്ന തുണി അതിനനുസരിച്ച് മാറും ആ നമ്മൾ ചെയ്തുതരാം എത്രാം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു ആ ഓക്കെ ആ ഓക്കെ ഓക്കെ വന്നെടുക്കാം ഞങ്ങൾ വന്നെടുക്കാം നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം ദിവസം പറഞ്ഞാൽ മതി ആ നമ്മൾ അവിടെ വന്നെടുക്കാം

ആ വരാം വരാം ഡ്രെസ്സിൻ്റെ മോഡൽ വല്ലതും കയ്യിലുണ്ടോ ആ ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് മീൻസ് മെറ്റീരിയല് ഞാൻ പോയി എടുക്കണോ അതോ നിങ്ങൾ എടുത്ത് തരുമോ ആണോ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ എന്നാൽ വാട്സപ്പിൽ ഫോട്ടോ അയച്ചാൽ മതി അ മോഡലും കളർ തീമും ഒക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ